ചിത്രകല എന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല അത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കഴിവാണ് ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സാധാരണയായിട്ട് സംഭവിക്കുന്ന വീഴ്ചകൾ എന്നു പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മൾ ശരിയായ ഒരു അധ്യാപകനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിയായ ഒരധ്യാപകന് നല്ല ഒരു കഴിവും പ്രാവീണ്യവും ചിത്രകലയിൽ നല്ല പ്രാവീണ്യവുമുള്ള ഒരു അധ്യാപകന് നല്ല അർപ്പണ മനോഭാവമുള്ള ഒരധ്യാപകനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രംഗത്ത് വളരെ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അധ്യാപകനെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ടിട്ട് കഠിനപ്രയത്നം തന്നെ ചെയ്താലേ നമുക്ക് ഏതൊരു മേഖലയിലും നമുക്ക് ആ ഒരു നമ്മുടെ കഴിവ് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു അധ്യാപകനെ കണ്ടെത്തി നല്ല രീതിയിലുള്ള ഒരു അധ്യാ ശിക്ഷണം നേടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിത്രകലയിൽ ഉയരാൻ സാധിക്കുന്നവയാണ് അതാണ് ഒരു പ്രധാന വീഴ്ച എന്ന് പറയുന്നത് എത്രത്തോളം പരിശീലനം ആവശ്യമാണെന്ന് ചോദിച്ചാൽ കഠിനപ്രയത്നം തന്നെ ആവശ്യമാണ് നമ്മളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ നമ്മൾ ഒരു നൂറ് ശതമാനം കൊടുത്ത് തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഏതൊരു കലയായാലോ എന്തൊരു കാര്യം ആയാലോ അ അഭ്യസിക്കുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ നൂറ് ശതമാനം തന്നെ നമ്മൾ കൊടുത്ത് നമ്മൾ അതിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനം തന്നെ നമുക്കൊരു വിജയം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല ചിത്രകലയിലേക്ക് ഇറങ്ങുന്നവരെ നല്ല ചിത്രകലയിൽ പ്രാവീണ്യമുള്ള നല്ല ഒരു അധ്യാപകനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിക്ഷണം ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി അതിലേക്ക് തന്നെ നമ്മൾ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു കലാകാരൻ ആകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്